ആണോ എവിടെയാ എന്തുവാ പരിപാടി ഏതാ ഈ ടിവിക്കകത്ത് ഇരുന്ന് പടമൊക്കെ കണ്ടോണ്ടിരിക്കുന്നതിനേക്കാള് എളുപ്പമല്ലേടാ ഈ ഒ ടി ടി കയറി കണ്ടാൽ പോരെ ഇല്ലില്ല അത് എവിടുന്നേലും ലിങ്ക് വന്നാൽ ഇപ്പോൾ പിന്നെ നെറ്റ് ഇപ്പം ഏത് സമയത്താണെങ്കിൽ പോലും നിനക്കത് കാണാവല്ലോ ഇപ്പോൾ നിനക്കൊരാവശ്യത്തിന് കളിക്കാനൊക്കെ വരുമ്പോൾ അവിടെ വന്ന് വീട്ടിൽ എല്ലാവരും കളിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നീ വീട്ടിൽ ഇരുന്ന് സിനിമയും കണ്ടുകൊണ്ട് ഇരുന്നാൽ അതെങ്ങനെയാണ് അപ്പം നമുക്ക് ഈ ഒ ടി ടി എന്ന് പറയുന്ന നമുക്ക് ഓരോ ഇപ്പം നിനക്ക് ഏത് പടമാണ് വേണ്ടതെന്ന് വെച്ചാൽ നീ ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ച് തരാം ഇപ്പം ഒന്ന് മെമ്പർഷിപ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ തന്നെ വന്നോളും ഓരോ പടങ്ങള് വരുമ്പോൾ അങ്ങ് വന്നോളും ആണ് സമ്മതിച്ചു എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ടിവിക്കകത്തിരുന്ന് ടീവീലിരുന്ന് കാണണ്ട ഇപ്പോൾ അതിന്റെടയ്ക്ക് ഓരോ പരസ്യങ്ങള് ഇപ്പം നമ്മളിഷ്ടപ്പെട്ടൊരു സീനായി വരുമ്പോൾ പരസ്യങ്ങള് വരുന്നത് കരണ്ട് പോന്നത് അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഒ ടി ടി ആകുമ്പോൾ നിനക്ക് സമയം പോലെ ഒരു പാര്ട്ട്സ് പോലും കാണാതെ ചെറിയൊരു ഭാഗം പോലും കട്ടാവാതെ നിനക്കിരുന്ന് കാണാം അപ്പോൾ എവിടെന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് കാണണം എന്നില്ല ഇപ്പം കളിക്കുക വരുവാണേ ഇപ്പോൾ കളിസ്ഥലത്തിരുന്നു കാണാം എന്തിലു വേണേലും കാണാം ഈ വീട്ടിൽ തന്നെ അടയിരിക്കുന്നതിനേക്കാള് നല്ലയല്ലേ ഇപ്പോൾ കളിക്കുക വന്നാൽ ഈ ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങി അത്യാവശ്യം നല്ലരീതി തന്നെ കളിച്ച് തിരിച്ചോമ്പൊ ആറരയാവും ടി വി വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കരണ്ട് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ആ പടം കാണണമെങ്കിൽ ഇനി അടുത്തൊരു പ്രാവശ്യം പിന്നേയും വരുമ്പഴല്ലേ കാണാൻ പറ്റൂ പിന്നെ എന്നതാ വരുന്ന പടം ഇപ്പോൾ കണ്ടോണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് പടം തീരാറായി ക്ലൈമാക്സ് ആകുമ്പത്തെന് പടം അത് കറന്റ് പോയി പിന്നെ നീ എന്തോ ചെയ്യും എന്നാൽ പിന്നെ അതിൽ വേറെ എല്ലാ മോട്ടോസി വെരുന്ന ആദ്യമേ ടി ടി ഒ ടി ടി വരുന്ന കണ്ടാൽ ആദ്യമേ അതല്ലേ ഏറ്റു ലാഭം അത്രയും സമയം കളയണ്ട അത് മാത്രവല്ല പരസ്യം വരുന്ന ആ ഒരു സമയവും ഇല്ല നിനക്ക് ഏതു സമയം വേണേലും എപ്പം വേണേലും ഇരുന്ന് കാണാവല്ലോ നീ എവിടിരുന്നാണേലും ഇപ്പോൾ കളിക്കാന് പറ്റുന്നിടത്താണേലും അവിടുന്ന് തന്നെ നിനക്ക് കാണാവല്ലോ വീട്ടിൽ തന്നെ ഇരുന്ന് ഏതുനേരവും വീട്ടിൽ വെറുതെ കസേരക്കകത്ത് കുത്തിയിരുന്ന് കാണണ്ട കാര്യം ഇല്ലല്ലോ ഇപ്പം നിനക്കത് അതുപോലെ നല്ല ഒരു പടമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് പടങ്ങളുണ്ട് അപ്പം അങ്ങനെ അങ്ങനുള്ള പടങ്ങള് കാണണമെന്നുണ്ട് ഒറ്റക്കിരുന്നാണേലും ഒറ്റക്കിരുന്ന് കാണാവല്ലോ അപ്പം ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ നിനക്ക് ഈ വീട്ടിലിരുന്ന് കാണുന്നതിനെ അപ്പം നീ എല്ലാരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയേ അപ്പോൾ വീടിനു പുറത്തോട്ടൊക്കെ ഇറങ്ങി എന്തെല്ലാം കാര്യങ്ങളാണ് നാട്ടിൽ നടക്കുന്ന കളിച്ചും ചിരിച്ചും കളിയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലൊ അപ്പം അതൊന്നും വേണ്ടന്നാണോ നീ പറയുന്നത് ഇപ്പം ഏതുനേരവും വീട്ടിൽ ഇരുന്ന് സിനിമ കാണാനാണെങ്കിൽ എന്തോ ചെയ്യാനാണ് ആ എടാ ഓക്കെ എന്നാൽ പിന്നെ വിളിക്കാം നീ ഇരുന്ന് സിനിമ കണ്ടോ